ഒരു കുഞ്ഞ് ജനിച്ച് ഏകദേശം ഒരു മൂന്ന് അല്ലെങ്കിലൊരു നാല് വയസ്സ് തൊട്ട് അതിൻ്റെ ഒരു ദിവസത്തിൻ്റെ പ്രധാനമായിട്ടുള്ള വളരെയധികം സമയം ഏകദേശം ഒരു ഏഴ് എട്ട് മണിക്കൂറോളം ആ ഒരു കുഞ്ഞ് ചിലവഴിക്കുന്നതും അതിൻ്റെ ചിന്താഗതികൾ ബുദ്ധി അതേപോലെ സമൂഹത്തെ പറ്റിയുള്ളൊരു കാഴ്ച്ചപ്പാട് ഇതെല്ലാം വളരുന്നത് സ്കൂളിൽ നിന്ന് തന്നെയാണ് അല്ലെങ്കിലൊരു വിദ്യാലയത്തിലാണ് വിദ്യാലയങ്ങളിൽ നിന്നാണ് അറിവായിക്കോട്ടെ ജീവിതം എന്താണെന്നും ജീവിതത്തിലേക്കാവശ്യമായിട്ടുള്ള അറിവുകളും അത് അല്ലാതെ ചുറ്റുപാടിനെപ്പറ്റിയും വിജ്ഞാനങ്ങളെപ്പറ്റിയും പല പല വിഷയങ്ങളെപ്പറ്റിയുള്ള അറിവുകൾ കുഞ്ഞ് നേടുന്നത് അതേപോലെത്തന്നെ വിദ്യാലയങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങൾ നേടുന്നൊരു അറിവാണ് കലയും കരകൗശലവും അതായത് അതിപ്പം പാട്ടാകാം ഡാൻസാകം ചിത്രരചനയാകാം അതുപോലെ പ്രസംഗം പറയുന്നതാകാം ഒരു സെമിനാർ എടുക്കുന്നതായിക്കോട്ടെ ഒരു പരിപാടിക്ക് ഡാൻസ് കളിക്കുന്നതായിക്കോട്ടെ പാട്ടുപാടുന്നതായിക്കോട്ടെ ഇതെല്ലാം ഒരു കുഞ്ഞ് ചെയ്ത് പഠിച്ച് ശീലിച്ച് വരുന്നത് ഒരു വിദ്യാലയത്തിൽ നിന്നാണ് അതുകൊണ്ടുതന്നെ വിദ്യാലയം എന്ന് പറയുന്നത് ഒരു കുഞ്ഞിൻ്റെ കലയെ കലാപരമായ കഴിവുകളെ വളർത്തിയെടുക്കാൻ വളരെയധികം എന്താപറയുക വേണ്ടതും അതേപോലെതന്നെ വലിയൊരു പങ്കും വഹിക്കുന്നുണ്ട് ഇപ്പോൾത്തന്നെ പല സ്കൂളുകളിലും അതിപ്പോൾ ഒരു ഗവൺമെന്റ് സ്കൂൾ ആയിക്കോട്ടെ അല്ലാതെ ഒരു പ്രൈവറ്റ് സ്കൂൾ ആയിക്കോട്ടെ ഏതുതരം സ്കൂളാണെങ്കിലും അവിടെയെല്ലാം കുഞ്ഞുന്നാളുതൊട്ട് ഡാൻസിനു പാട്ടിന് ഇങ്ങനെ ചിത്രരചനയ്ക്ക് പല പല കലാകായികമായിട്ടുള്ള കാര്യങ്ങൾക്ക് ക്ലബ്ബുകൾ അങ്ങനെയുള്ള പലപല കാര്യങ്ങളും സംഘടന പോലത്തെ രൂപീകരിച്ചിട്ടുണ്ട് അത് ഒരുപാട് സ്കൂളുകൾ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും മുന്നോട്ട് വെയ്ക്കുന്ന ഒരു ആശയം തന്നെയാണ് അതായത് കുഞ്ഞുങ്ങൾക്ക് പുസ്തകത്തിൽ നിന്ന് ഉള്ള അറിവ് മാത്രം അല്ലാതെ അതിൻ്റെ കൂടെത്തന്നെ കലാപരമായ അവരുടെ കഴിവുകളേയും വളർത്തിയെടുക്കാനുള്ളൊരു അവസരം കൊടുക്കുകയെന്നുള്ളതാണിതിൻ്റെയൊരു പ്രധാന ഉദ്ദേശം അത് ഇപ്പം നല്ലതായിട്ട് പടം വരയ്ക്കുന്നൊരു കുഞ്ഞാണെങ്കിൽ അതിനെ ചിത്രരചനാ ക്ലബ്ബിലേക്ക് ചേർത്ത് അവിടെ അതിനുവേണ്ട പരിശീലനം കൊടുത്ത് നല്ല രീതിയില് മുന്നോട്ടുവരാൻ വളർന്നുവരുംതോറും പുതിയ പുതിയ രീതികൾ പഠിക്കാനും പുതിയ പുതിയ കലകൾ കലാപരമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി അറിയാനും അതേപോലെ ഒരുപാട് ചിത്രകാരന്മാരെയൊക്കെ അല്ലെങ്കിൽ ചിത്രകാരികളെ പരിചയപ്പെടാനും ഒക്കെയുള്ള അവസരങ്ങളിന്നത്തെ കാലത്ത് പല വിദ്യാലയങ്ങളും ഒരുക്കുന്നുണ്ട് അത് ഡാൻസായിക്കോട്ടെ പാട്ടായിക്കോട്ടെ കോമ്പറ്റീഷൻസ്സിൽ അതായത് കലോത്സവം പോലുള്ള സ്ഥലങ്ങളിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുപോവാനും പങ്കെടുപ്പിക്കാനും അവിടുന്ന് അവർക്ക് കിട്ടുന്ന സമ്മാനങ്ങളത് അവർക്കൊരു വലിയ പ്രോത്സാഹനമാണ് അങ്ങനെ പറയുമ്പോഴത്തേനും കടലാസ് ബോട്ടുണ്ടാക്കുക എന്നൊക്കെ പറയുന്ന സ്വപ്നം ഓർമ്മകൾ കുട്ടിക്കാലത്ത് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് പേപ്പറുകൊണ്ട് പ്ലെയിനുണ്ടാക്കുക ക്ലാസ്സിലത് പറത്തി കൂട്ടുകാരുടെ കൂടെ കളിക്കുക അതേപോലെ പേപ്പറുകൊണ്ട് ഒറിഗാമി ആർട്ട് ചെയ്യുക അതായത് ഒരു പേപ്പർ ഒരു സാധാരണ ഒരു വെള്ള പേപ്പറുകൊണ്ട് എങ്ങനെ നമുക്ക് പലപല കുഞ്ഞുകുഞ്ഞ് കളികളുണ്ടാക്കാം അതേപോലെ പൂക്കളെങ്ങനെ ഉണ്ടാക്കാം കളർ പേപ്പറുവെച്ച് പലപല കളറിൽ പൂക്കൾ എങ്ങനെയുണ്ടാക്കാം ടിഷ്യു പേപ്പറുപയോഗിച്ച് ഫ്ലവർ ബേസ്സുണ്ടാക്കുക അല്ലെങ്കിൽ പൂക്കളുണ്ടാക്കുക അങ്ങനെ പലപല കാര്യങ്ങൾ നല്ലൊരോർമ്മയായിട്ട് വിദ്യാലയ ജീവിതത്തിലുണ്ടായിട്ടുണ്ട് വേസ്റ്റ് കൊണ്ട് നമ്മുക്കെങ്ങനെ ഭംഗിയുള്ള റൂമൊക്കെ എന്താപറയുക ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളുണ്ടാക്കുക എന്നൊക്കെയുള്ളത് വളരെ നല്ല കുട്ടിക്കാല ഓർമകളാണ് ഇത് കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രോത്സാഹനവും അല്ലെങ്കിൽ കളഞ്ഞ് തീർന്ന എഴുതിത്തീർന്ന ബുക്കുകളുടെ പേപ്പറോ അല്ലെങ്കിൽ കളയാൻ വെച്ചിരിക്കുന്ന പേപ്പറുകൊണ്ട് എന്തേലും ഒരു ഉപയോഗമുണ്ടാവുന്ന സാധനമുണ്ടാക്കാനൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഒരു പുതിയ പുതിയ ഐഡിയാസ് കൊടുക്കാനൊക്കെ വളരെയധികം സഹായിക്കുന്നൊരു കാര്യമാണ്